വിദ്യാഭ്യാസ രംഗത്ത് നല്ല രീതിയിൽ തന്നെ മുന്നിട്ടു നിൽക്കുന്നൊരു ജില്ലയാണ് പാലക്കാട് പാലക്കാട് ഒരുപാട് സർക്കാർ സ്കൂളുകളും കോച്ചിങ്ങ് സെന്ററുകളും പ്രൈവറ്റ് സ്കൂളുകളും ഒരുപാട് പ്രൈവറ്റ് കോളേജുകളും ഗവൺമെന്റ് കോളേജുകളും ഉള്ള ഒരു ജില്ലയാണ് പാലക്കാട് അവിടെത്തന്നെ പാലക്കാടിൽ ഒരുപാട് കോഴ്സുകളും ഇന്ന് ലഭ്യമാണ് എല്ലാത്തരത്തിലുള്ള പഠന സാഹചര്യങ്ങളും കൂടി ഉള്ളൊരു സ്ഥലമാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ ലഭ്യമായ പ്രാദേശിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസ അവസരങ്ങൾ ഇന്നിവിടെ കോച്ചിങ്ങ് ക്ലാസുകളുണ്ട് എൻട്രൻസ് ടോപ്പ് സെന്ററുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ മുന്നിട്ട് നിൽക്കുന്നൊരു കോച്ചിങ് സെന്ർ തന്നെയാണ് ന്യൂക്ലിയസ് എന്നു പറയുന്നത് ഒരുപാട് പേർ എൻട്രൻസിനായി അവിടെ എൻട്രൻസ് പരീക്ഷകൾക്കായി അവിടെ പോയി പഠിക്കുന്നവരായിട്ട് ഒരുപാട് പേരുണ്ട് ഇനി സർക്കാർ സ്കൂളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ സർക്കാർ സ്കൂളുകളും അത്യാവശ്യം ഭേതമെന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് എന്നിരുന്നാൽ കൂടിയും ചില സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറവാകുകയും സൗകര്യങ്ങൾ കുറവാകുകയുമായി കണ്ടുവരുന്നുണ്ട്